സുരേഷ് പിള്ള എന്ന് പറയുന്ന ഒരു പാചക വിദഗ്ദനുണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ പാചകങ്ങൾ വളരെ എനിക്കിഷ്ടമാണ് ഇദ്ദേഹം ഒരു അവതാരകനും കൂടെ ആണ് സുരേഷ് പിള്ള എന്ന് പറയുന്നത് അപ്പം കേരളത്തിൽ നിന്നുമുള്ള ഒരു പാചക വിദഗ്ധനും അവതാരകനുമാണ് ഈ സുരേഷ് പിള്ള ഇദ്ദേഹത്തിൻ്റെ പാചകങ്ങൾ അല്ലെങ്കിൽ ഇദ്ദേഹം ഈ പാചകങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് വളരെ മനസ്സിലാകുന്ന രീതിയിൽ ആണ് നമുക്ക് ഒരു പ്രേക്ഷകൻ പ്രേക്ഷകൻ എന്ന നിലയില് ഇദ്ദേഹം ഒരു പാ പാചകം അല്ലെങ്കില് ഒരു ഒരു ഡിഷിനെ കുറിച്ച് എങ്ങ് എങ്ങനെ മറ്റുള്ളവരിൽ എത്തിക്കണമെന്ന് അവബോധമുള്ള ഒരു മനുഷ്യനായിട്ട് തോന്നിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ പാചകങ്ങള് എല്ലാം തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട്